പിന്നെ ഈ പൈപ്പ് ഐറ്റംസ് അങ്ങനത്തേത് ഒക്കെ ഉണ്ടാകും അല്ലേ

ആ ആ ആ ആ ആ ഓ ഓ അപ്പം ഈ ഒരു മീഡിയം ലെവലിൻ്റെ ഒരു ബക്കറ്റ് മതി വില കൂടുതലാണ് മീഡിയം വേണ്ടേ ആ ആ ആ അപ്പം ഒരു ഒന്ന് ഓ ഓ ഓ അത് നല്ലൊരു കാര്യമായിരുന്നു ഓ നൂറ്

ആയിക്കോട്ടെ

ഓക്കെ

നമ്മൾ ടാപ്പ് ടാപ്പ് ടാപ്പ് ആണ് വേണ്ടത് ടാപ്പ് ഉണ്ടാവില്ല നല്ലത് ആ അതാണ്

ഒരു ഇരുപത് എണ്ണം മലപ്പുറത്ത് മലപ്പുറത്ത് എവിടെ ആ അ ആ കോളേജ് ആ കോളേജിൻ്റെ അവിടെ

അപ്പം ഡെലിവറി ഉണ്ടോ എൻ്റെ മ് നാട് മഞ്ചേരി പാലിക്കാട് നാട്

ആ എന്നാൽ ശരി ഓക്കെ വിളിക്കാം